ഞാൻ ഇപ്പോൾ ദൂരെ എവിടേക്കെങ്കിലും ഒക്കെ പോകുകയാണെങ്കിൽ മാപ്പ് ഒക്കെ ഇട്ടിട്ടേ പോകുകയുള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് ഈസിയായിട്ടുള്ള ഷോർട്ട് കട്ട് വഴികളൊക്കെ മാപ്പിലൂടെ കാണാൻ പറ്റും ഇപ്പം ഗൂഗിൾ മേപ്പിൽ ഒക്കെ അങ്ങനെ കാണും അതുപോലെ നമ്മളിപ്പോൾ പോകുന്ന കാറിലൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാൽ വിതൗട്ട് ടോൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തു കാരണം ആ ടോള് കൊടുക്കാതെ നമുക്ക് കട്ട് റോഡ് വഴി കയറി പോവാനുള്ള ഒരു ഓപ്ഷനൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ മാപ് ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് എനിക്ക് ഭയങ്കര ഹെല്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ചില ഏരിയകളിൽ ഒന്നും ഇതിൻ്റെ റേഞ്ച് ഫുള്ളായി കിട്ടില്ല അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാകും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ആരോടെങ്കിലും കൺ ചോദിച്ച് പോയാൽ നമ്മൾ പിന്നെ എപ്പോഴും മാപ് ഇട്ട് പോകുന്ന സമയത്ത് ആരോടെങ്കിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് കറക്റ്റ് റോഡ് സൈഡിൽ ആരോടെങ്കിലും ഒക്കെ നിർത്തി ജസ്റ്റ് ഒന്ന് വഴി കറക്റ്റ് ആണോ എന്ന് കൺഫോം ചെയ്തിട്ട് തന്നെ പോകുന്നതായിരിക്കും കുറച്ചൂടെ നല്ലത് പൂർണമായിട്ടും നമുക്ക് ഇപ്പോ സാറ്റലൈറ്റിനെയോ ഗൂഗിൾ മാപിനെയോ വിശ്വസിക്കാൻ പറ്റില്ല ചില സമയങ്ങളിൽ അത് അതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊന്നും ക്ലിയർ ആകണമെന്നില്ല എന്നാലും വളരെ ഹെല്പ്ഫുള്ളാണ് ഗൂഗിൾ മാപ് നമുക്ക് ഇപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും ഇപ്പം നമുക്ക് ടോൾ കൊടുക്കാതെ പോകാം അതുപോലെ ബൈക്കിൽ ഒക്കെ പോകാൻ കുറച്ചൂടെ ഈസി ഷോർട്ട് കട്ട് കൊടുത്ത് ഷോർട്ട് കട്ടായിട്ടുള്ള വഴികളൊക്കെ മാപിൽ കാണിച്ച് തരും അപ്പം നമുക്ക് ഈസിയായിട്ട് പെട്ടന്ന് പോയി വരാൻ പറ്റും അതുപോലെ ത്രീഡി ഇതുണ്ട് ഇപ്പം ത്രീഡിയായിട്ട് നമ്മൾ പിക്ചർ ഒക്കെ കാണിക്കും അവർ ആൾറെഡി സേവ് ചെയ്ത് വെച്ച പിക്ചർ എല്ലാം കാണിക്കും അപ്പം അത് നമുക്ക് നോക്കി സ്ഥലം കറക്റ്റ് ചെയ്ത് മനസിലാക്കാൻ പറ്റും അതുപോലെ ഇപ്പം വല്ല ഷോപ്പിലേക്ക് ഒക്കെയാണ് പോകുന്നത് വച്ചാൽ ആ ഷോപ്പിൻ്റെ ഒക്കെ നമ്പറ് മേപിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകും അപ്പം നമുക്ക് അത് നോക്കി കോൺടാക്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിച്ച് പോകാം അതുപോലെ ഓപ്പണിങ് ടൈമ് ഒരു ഷോപ്പിൻ്റെ ഓപ്പണിങ് ടൈമ് ക്ലോസിങ് ടൈമ് ഒക്കെ അതിൽ കാണിക്കും അതിൽ വർക്കിംഗ് ടൈമൊക്കെ കാണിക്കും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിന് അനുസരിച്ച് ഒക്കെ പോവാൻ സാധിക്കും അതൊക്കെ ഭയങ്കര ഹെല്പ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്